സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള ഭാഷകളിൽ നിന്നൊക്കെ മലയാള ഭാഷ കുറേ കടമെടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ഭാഷ ഫുള്ളായിട്ടു ചില വേർഡ്സിനൊന്നും ഇംഗ്ലീഷ് മലയാളം കിട്ടൂലല്ലോ അതൊക്കെ ഇതില്നിന്നു കടമെടുത്തിട്ടുള്ളതാണ് അതേപോലെ സംസ്കൃതം കുറേ കാര്യങ്ങള് നമ്മള് ശ്രദ്ധിക്കുമ്പോള് കാണാം എന്താണ് നമ്മള് കുറേ കാര്യങ്ങള് കടമെടുത്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നമ്മുടേതു കുറച്ചും കൂടി സ്റ്റാൻഡേർഡാക്കാനും ഒക്കെയാണ് ഇംഗ്ലീഷൊക്കെ കൂട്ടിക്കലർത്തി പറയല് പിന്നെ പലതിനും ഇപ്പോള് സാധാരണക്കാരനാണെങ്കിലും നമ്മള് മലയാളം ഏതു വാക്ക് ഉപയോഗിക്കണം എന്നുള്ളതറിയില്ല പിന്നെ എന്തെയ്യും ഇംഗ്ലീഷ് വേർഡ്സ് വച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിച്ചവരാണെങ്കില് പിന്നെ പറയുകയും വേണ്ട അവര്ക്കു കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക ഇംഗ്ലീഷ് ഭാഷയിലാണ് കുറച്ചു മലയാളമേ യൂസ്യ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മളെ കാര്യങ്ങള് വേറെയുള്ളവരുമായി ആ ആശയങ്ങള് പങ്കുവയ്ക്കണമെങ്കില് നമ്മുടേതായ ഒരു രീതിയുണ്ടാവും പല കാര്യങ്ങൾക്കുമിപ്പോള് ഒരു പ്രൊഡക്ടിൻ്റെ നെയിം എന്താണ് ഇംഗ്ലീഷിലുള്ളതു മലയാളത്തിലാക്കാൻ പറ്റാത്തതുപോലെ കുറേ വേഡ്സെന്നെ അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോള് പ്രത്യേകം ഉദാഹരണംം പറയുകയാണെങ്കില് കുറേ ഈ പണ്ട് വളരെ മടിച്ചു പറഞ്ഞിരുന്ന വാക്കുകളൊക്കെ ഇപ്പോള് നമ്മള് ചെയര് ഡോര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാക്കുകള് സിമ്പിളായിട്ടുള്ളതാണെങ്കിലും പിന്നെ കുറച്ച് അഫോർഡബിളാണ് എന്നുള്ള കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള വാക്കുകളാണെങ്കിലും ഇപ്പോള് എല്ലാവരും സാധാരണക്കാരുമൊക്കെ യൂസ് ചെയ്യും പിന്നെ യൂസ് എന്നുള്ള വാക്കുതന്നെ ഒരു വിധം ഏതാൾക്കാർക്കുമറിയും അതിപ്പോള് ഏതു പ്രായമായവരും പറയും അങ്ങനെ യൂസ് ചെയ്യുക അങ്ങനെ ഒരിതില് വന്നിട്ടുണ്ട് അത് അ നമ്മുടെ ഭാഷയ്ക്ക് ഒരു മുതൽക്കൂട്ടാണോ എന്നു ചോദിച്ചാല് അങ്ങനെ നമുക്കു പറയാനും പറ്റില്ല കാരണം നമ്മുടെ ഭാഷ പറയാൻ നമുക്കൊരു നാണക്കേടു പാടില്ല നമ്മളെ ഭാഷ നമ്മള് ബഹുമാനത്തോടൂകൂടിയിട്ടു തന്നെ കൊണ്ടുനടക്കണം അതിന്റെ കൂടെ നമ്മള് വേറെയുള്ള ഭാഷകളും പഠിക്കണം നമ്മള് ചില മാരൊക്കെ സംസാരിക്കുന്നതുപോലെ ഇങ്ങനെ മലയാളം പറഞ്ഞിട്ടും ഇംഗ്ലീഷ് തപ്പിപ്പിടിച്ചു പറയുന്നതുപോലുള്ള ഒരു അവസ്ഥ വരാന് പാടില്ല നമ്മള്ക്കു മലയാളം പറയാന് നമുക്കൊരു ഇതു വേണം അതായത് നമുക്കൊരഭിമാനമാണ് നമ്മളെ ഭാഷയാണ് മലയാളമെന്നുള്ളത്